എൻ്റെ കുടുംബം ഒരു വലിയ കുടുംബമാണ് ഒരു കൂട്ടുകുടുംബം ആണ് അതുകൊണ്ടു തന്നെ കൂട്ടുകുടുംബത്തിൽ ഒരുപാട് ആൾക്കാരുമുണ്ട് അപ്പം അവർക്കെല്ലാവർക്കുമായ ഭക്ഷണം പാകം ചെയ്യുന്നത് പാകം ചെയ്യുന്നത് തന്നെ ഒരു വലിയ ടാസ്ക്ക് ആണ് പക്ഷേ അത് എല്ലാവരും അമ്മമാരും എല്ലാവരും കൂടി എൻജോയ് ചെയ്തിട്ടാണ് എല്ലാവരും ചെയ്യുന്നത് അപ്പം കഴിഞ്ഞ ഓണത്തിനാണ് എല്ലാവരും കൂടെ കൂടി ഭക്ഷണം പാകം ചെയ്തും എല്ലാവരും ഒരുമിച്ച് കഴിച്ചത് അപ്പം ഒരുപാട് പേർക്കായിട്ട് ഭക്ഷണം പാകം ചെയ്യുമ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ട് പക്ഷേ എന്നാലും എല്ലാവരും കൂടെ ഒത്തു കൂടി സാമ്പാറിന് ഒരാൾ അരിയുന്നു അവിയൽ ഒരാൾ ഉണ്ടാക്കുന്നു തോരൻ കറി വേറെ ഒരാൾ ഉണ്ടാക്കുന്നു പായസം വേറെ ഒരാൾ ഉണ്ടാക്കുന്നു അങ്ങനെ ഒരുമ ഒരുമിച്ചു കൂടി ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന അനുഭൂതിയും ആ വൈബ് വേറെ തന്നെയാണ് അപ്പം എളുപ്പമാർഗ്ഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പം അടു അടുത്തയാൾ അടുത്ത കാര്യം ചെയ്യും ഒരാൾ അരിയുവാണെങ്കിൽ ഒരാൾ എന്താണ് കറി കറി ഉണ്ടാക്കുവായിരിക്കും അപ്പം അങ്ങനെ അങ്ങനെ ഒരുപാട് രീതികളിലൂടെ ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും കൂടി ചെയ്യുമ്പം അതിന് വേറെ ഒരു ഭംഗി തന്നെയാണുള്ളത്